ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും കണ്ടുവരുന്ന ഒന്നാണ് പ്രണയം എന്നു പറയുന്നത് പ്രണയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആ നെഗറ്റീവ് വശത്തെയും അതിൻ്റെ പോസിറ്റീവ് വശത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അതേപടി അനുസരിക്കുകയല്ല മറ്റൊരാൾ വേണ്ടത് എന്നു മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങളിലും അവരുടെ വിഷമങ്ങളിലും കൂടെനിന്ന് അവരെ സഹായിക്കുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ള സുഹൃത്താണെങ്കിൽ പോലും അവരെ നമുക്ക് പ്രണയിക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞു പോവുക ഏറ്റവും കൂടുതലായിട്ട് റേറ്റ് മുന്നോട്ട് പോകുന്ന ഒരു പരസ്യം എന്നു പറയുന്നത് രണ്ട് പ്രണയാർത്ഥി പ്രണയാർത്ഥികൾ തമ്മിൽ നടത്തുന്ന പരസ്യങ്ങളായിരിക്കും കാരണം പ്രണയത്തിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വാല്യു അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ജനങ്ങൾ അതുകൊണ്ടുതന്നെ അതിനെത്ര പ്രാധാന്യം ഉണ്ടെന്ന് അവർക്ക് നല്ലവണ്ണം മനസ്സിലാവുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നവരാണ്